ആ പറഞ്ഞോളൂ ഇവിടെ നമുക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പം കക്കയം ഡാമ് പിന്നെ പഴശ്ശി പഴശ്ശി ഡാമിണ്ട് മാനാഞ്ചിറ ഉണ്ട് അങ്ങനത്ത ഇഷ്ടം പോല സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ ആ ആ അപ്പോൾ ആ അത് ഞങ്ങളെന്നെ ചെയ്ത് തരും കുഴപ്പം ഇല്ല ഞങ്ങൾ തന്നെ ചെയ്ത് തരാം അപ്പം അതിന് അഡീഷണൽ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് റിസോർട്ട് അങ്ങനത്തെ എന്തെങ്കിലും ആണോ താൽപ്പര്യം ഉള്ളത് ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ നല്ലൊരു ഇപ്പം റിസോർട്ട് കാര്യങ്ങൾ ഒന്നും വേണ്ടല്ലോ അല്ലാതെ നോർമൽ ആയിട്ടുള്ളത് പോരെ മതി അല്ലേ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം ഇപ്പം എന്താ റിസോർട്ടെന്നല്ല എന്താ പറയാ ഇപ്പം നല്ല രീതിയിൽ ഉള്ളൊരു ഫ്ലാറ്റ് പോലത്ത അങ്ങനത്ത ടൈപ്പ് ഒക്കെ പോരെ നിങ്ങൾക്ക് ആ എന്നാൽ നോർമൽ ആയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് നിങ്ങൾ പതിനാറാം തീയ്യതി നിങ്ങൾ ട്രെയിനിൽ ഇവിടെ ഇറങ്ങാൻ എത്താൻ ആവുമ്പം വിളിച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാം വണ്ടി ഞാൻ റെഡിയാക്കി ഇട്ടേക്കാം ആ ചെയ്തു തരാം എത്ര ദിവസത്ത ഫുഡ്ഡാണ് വേണ്ടത് താമസോം

അല്ല മീൽസ് ഞങ്ങൾ തന്നെ അപ്പം അങ്ങനെ ആണെങ്കിൽ ചെയ്ത് വച്ചേക്കാം കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ വരുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ആരൊക്കെ ഉണ്ട് എത്ര പേരു ഉണ്ടുന്നും ഒന്ന് കോൺടാക്ട് ചെയ്യണം ഓക്കെ എന്നാൽ